പതിനൊന്ന് പത്ത് രണ്ടായിരത്തി അഞ്ച് പതിനാല് ഒന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഏഴ് പതിനേഴ് പത്ത് രണ്ടായിരത്തിയേഴ്